കൃഷിയിടത്തില് ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് എൻ്റെ വാപ്പ ഒരു കർഷകനാണ് എന്താണ് പറയാനായിട്ടുള്ളത് പണ്ട് നെല്ലും അതുമിതുമൊക്കെ കൃഷി ചെയ്യുമായിരുന്നു ഇന്നിപ്പോള് അതൊന്നുമില്ല വാഴ ചീനി ചേമ്പ് ചേന കാച്ചില് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പയര് പാവല് കുമ്പളം ഇഞ്ചി പച്ചമുളക് കറിവേപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കൃഷി ചീര അങ്ങനെയതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളും വാപ്പായുടെ കൂടെ പോവുകയും കൃഷിയിടത്ത് പോയി വയലുകളിൽ പോയി സഹായിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പം എന്താണുള്ളത് നമുക്ക് നമ്മള് തന്നെ കൃഷി ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായ നല്ല ആഹാരം കഴിക്കാനും വിഷം വിഷം ഉപയോഗിച്ച് കുത്തി വരാത്ത നല്ല വെജിറ്റബിൾസ് നമുക്ക് കിട്ടുകയും അത് നമ്മള് കഴിക്കുകയും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുകയും എല്ലാ രീതിയിലും നല്ല മാറ്റങ്ങള് വരികയും ചെയ്യും എപ്പോഴും നമ്മള് നമ്മുടെ നമ്മുടെ വീടിന് ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു പച്ചക്കറിത്തോട്ടം വേണം നമ്മുടെ കിച്ചണിന് ഞങ്ങളുടെ ഇവിടെ പച്ചക്കറിത്തോട്ടം നട്ടിട്ടുണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് എല്ലാം ഒരുവിധമെല്ലാം നമ്മുടെ ആവശ്യത്തിന് കിട്ടുന്നതെല്ലാമുണ്ട് പുറത്തുനിന്ന് ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങേണ്ട കാര്യമില്ല എന്തിന് പൈസ കൊടുത്ത് നമ്മള് വിഷം വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോള് ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് രാവിലെയും വൈകുന്നേരവും വെള്ളം നനയ്ക്കാൻ പോകും എല്ലാമുണ്ട് പഴങ്ങള് കിട്ടും പിന്നെ ഫ്രൂട്സൊക്കെ നട്ടിട്ടുണ്ട് പച്ചക്കറികളെല്ലാം കിട്ടും നമുക്ക് തോരനും അവിയലും മുരിങ്ങയുണ്ട് മുരിങ്ങയുടെയില തോരൻ വെയ്ക്കാം മുരിങ്ങയ്ക്ക കിട്ടാറുണ്ട് കുമ്പളമുണ്ട് മത്തനുണ്ട് ചൊരയ്ക്കയുണ്ട് എല്ലാമുണ്ട് ഒരോ ദിവസം ഞങ്ങള് ഓരോന്ന് വെയ്ക്കും പിന്നെ വഴുതനങ്ങയുണ്ട് നമുക്ക് പുറത്ത് കൊടുക്കാനും നമ്മുടെ ആവശ്യത്തിന് എടുക്കാനും രീതിയിലുള്ളതുണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നമ്മള് കൃഷി ചെയ്ത് വിഷമില്ലാതെ എടുത്തുകഴിക്കുന്ന പച്ചക്കറിയാണ് നമ്മള് പൈസ കൊടുക്കുന്നു വിഷം വാങ്ങിക്കഴിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് വിഷമടിച്ചാണ് പകുതി മുക്കാല് സാധനങ്ങളും മാസന്തോറും വന്നിരുന്നിട്ട് ഒരു കേടുപാടുകള് പോലുമില്ലാതെയാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മള് കൊണ്ടുവന്ന് ഇപ്പം കുറേ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജിലിട്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ട് ആഴ്ചകള് കഴിഞ്ഞ് മാസങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് ഇതില് നിന്ന് നമ്മുടെ ആരോഗ്യം പോകുന്നതല്ലാതെ നമുക്ക് വേറെയൊന്നും കിട്ടാനില്ല അപ്പോള് എപ്പോഴും നമ്മള് കൃഷി ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ് നമ്മുടെ ആവശ്യത്തിന് കൃഷി ചെയ്യുക ഒരുപാട് പറ്റിയില്ലെങ്കിലും അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യവും നല്ലതുപോലെ മുന്നോട്ടുകൊണ്ടുപോകാൻ പറ്റും ഇന്നത്തെ തലമുറയില് എല്ലാവർക്കും അസുഖങ്ങളാണ് ഇപ്പോള് എന്തുകൊണ്ടാണ് ഈ പുറത്തുനിന്നുള്ള ആഹാരരീതി ഇതൊക്കെ കൊണ്ടാണ് അവനവനൊരു കൃഷിത്തോട്ടമുണ്ട് അതിനകത്ത് എല്ലാം ചെയ്ത് ഇതാക്കുകയാണെങ്കില് ആരോഗ്യപരമായിട്ടും നല്ല സുഖമായിട്ട് ജീവിക്കാൻ കഴിയും